മലയാളമെന്നത് എന്റെ മാതൃഭാഷയാണ് എന്റെ സംസ്കാരത്തെ എന്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ ഈ മലയാള ഭാഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് മലയാളം എന്നത് എന്റെ നാവിലെ ഭാഷയാണ് എന്റെ മാതാപിതാക്കൾ സംസാരിക്കുന്നത് മലയാളത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ ജനിച്ചു എന്നത് എന്റെ അഭിമാനം തന്നെയാണ് കാരണം മലയാളത്തിൽ സംസാരിക്കാൻ അച്ചടി ഭാഷ സംസാരിക്കുന്നതിൽ പത്തനംതിട്ടക്കാർക്കൊരു വളരെ വളരെ വലുതാണ് കേരളത്തിൽ പലവിധ ജില്ലകളിലും മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും സംസാരിക്കുന്നത് മലയാള ഭാഷ എന്നും നമ്മുടെ ജീവിതത്തെ നയിക്കാൻ സാധിക്കുന്നതാണ് ഒരു ദിവസം ഞാൻ എക്സാമെഴുതാനായി മങ്കലാപുരത്തേക്ക് ഒരു യാത്ര ചെയ്യുകയുണ്ടായി അറിയാവുന്നവർ ആരും തന്നെയുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കെന്റെ മലയാളഭാഷ മലയാളമറിയാവുന്ന ഒരാളെക്കണ്ടു അവിടെ ഹോട്ടലുകൾ നടത്തിയാണ് ആ പുള്ളി ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെ പോയാലുമൊരു മലയാളിയെങ്കിലും കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വികാരമെന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് എന്റെ വ്യക്തിത്വം വികാസത്തിൽ എന്റെ ഭാഷക്കുള്ള ആ സ്ഥാനവും വളരെ വലുതാണ് കാരണം എന്റെ ഭാഷയെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എന്റെ വ്യക്തിത്വം വികാസത്തെ എനിക്ക് മലയാള ഭാഷകൊണ്ട് സാധിച്ചിട്ടുണ്ട് വ്യക്തമായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് വ്യക്തമായ ആശയമെത്തിക്കാനും എന്റെ മലയാള ഭാഷകൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്റെ ജീവിതമെന്നത് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒന്നാണ് എന്റെ വ്യക്തിത്വം വികാസത്തിൽ എന്റെ മലയാളഭാഷയുടെ പങ്ക് വളരെ വലുതാണ് മലയാളഭാഷ എന്റെ സംസ്കാരത്തെ വ്യക്തിത്വത്തെയും വളരെയധികമായി സ്വാധീനിച്ചിട്ടുമുണ്ട് എങ്ങനെയെല്ലാം ജീവിക്കാമെന്നും എങ്ങനെയെല്ലാമെന്നും മുന്നോട്ട് പോകാമെന്നും എന്റെ ഭാഷ എന്നെ പഠിപ്പിക്കുന്നു ഇതിലൂടെ വ്യക്തമായ രീതിയിലുള്ള ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമെനിക്ക് സാധിക്കും എവിടെപ്പോയാലും മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്ന അന്താരാഷ്ട്രതലത്തിൽ മലയാളിക്ക് മലയാളത്തിനുള്ള സ്ഥാനക്കുറവ് എന്നിൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ സിറി പോലുള്ള ഭാഷകൾക്ക് മലയാളം മാത്രമാണ് പറയാൻ സാധിക്കുന്നത് കാര്യം അവർ മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ട ആപ്ലിക്കേഷങ്ങൾ പോലുള്ള സോഫ്റ്റ് വെയറ്കളാണ് മലയാള ഭാഷയെ എന്നും നാം സ്നേഹിക്കുക നമ്മുടെ വ്യക്തിത്വം വികാസാത്തിനായുള്ള പങ്ക് വളരെ വലുതാണ് മലയാള അധ്യാപകർ നൽകുന്ന വ്യക്തമായ രീതിയിൽ നല്ല നല്ല കടുകട്ടിയുള്ള വാക്കുകൾ അവർ നമ്മളിലേക്ക് നൽകുമ്പോൾ നല്ല രീതിയിലതിനെ പങ്ക് പറയുവാനും പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു ഒരുപാട് തലത്തിലുള്ള എടുത്തഭാഷകളും മലയാളം നമ്മുടെ ക്രിസ്ത്യാനികളുടെ വിശേഷ പൂഷ്ണമായ ബൈബിൾ പോലെ മലയാളത്തിൽ രചിക്കപെട്ടതാണ് പല പല കവികൾ എഴുത്തച്ഛൻ കുഞ്ചൻനമ്പ്യാർ തുടങ്ങിയ രചനാ രചയിതാക്കളും മലയാള ഭാഷകൾ കൊണ്ട് മലയാളഭാഷ കൊണ്ട് ഉയർന്ന് വന്നവരാണ് അവർ തങ്ങളുടെ പുസ്തകങ്ങൾ രചിച്ചിരിക്കുന്നത് എല്ലാം തന്നെ മലയാളത്തിൽ തന്നെയാണ് മലയാളഭാഷായെ വ്യക്ത രീതിയിലാക്കി മാറ്റുവാനും സാധിക്കുന്നതാണ് ഏതൊരു ഭാഷക്കാർക്കും എവിടെപ്പോയാലും മലയാളി എന്ന് ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും എസ് ഐ ആം എ മലയാളീയെന്ന് കാര്യം മലയാളമിന്ന് പവർ ഓഫ് മൈ ലൈഫാണ് കാര്യം മലയാളിയായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു ആ അഭിമാനത്തെ ഞാനെന്നും സ്നേഹിക്കേം ചെയ്യുന്നു എൻറ്റാ എനിക്ക് അതും കൂടെ സാധിക്കുന്ന ഒന്നുതന്നെയാണ് എനിക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള മലയാളഭാഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് പ്രധാന സുപ്രധാനമായ കാര്യം തന്നെയാണ് മലയാളഭാഷ കൊണ്ട് എന്നും ഞാൻ ജീവിക്കും എന്നും ഞാൻ ജീവിതത്തിൽ പോരാടും എന്നത് എനിക്ക് പറയാൻ സാധിക്കും എവിടെച്ചെന്നാലും എനിക്കിപ്പം പതിനെട്ട് വയസ്സായി ഞാൻ പഠിച്ച് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെച്ചെന്നാലും ഒരു മലയാളിയേക്കാണും ഒരു മലയാളിയോട് സംസാരിക്കാൻ പറ്റുമെന്ന് ഒറച്ചുപോയ നിശ്ചയധാർഥ്യം എനിക്കുണ്ട് മലയാളത്തിലുള്ള കടുകട്ടിയുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാനും അവർ മലയാളം പറഞ്ഞ് എന്റെ ഭാഷയുടെ പ്രശംസയെനിക്ക് അവിടെ എത്തിക്കാനും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതനുസരിച്ച് ഞാൻ ജീവിക്കും